ഹലോ ഇത് ട്രൂ കട്ട് ഏജൻസിയല്ലേ സംസാരിക്കുന്നത് ആർദ്രയാണ് മറ്റൂർന്നാണ് അപ്പോള് നമുക്ക് കഴിഞ്ഞവർഷം ഇതുപോലെ ഞങ്ങളൊരു ഏപ്രിൽ മെയ് മാസമായിക്കഴിഞ്ഞപ്പോള് ഞങ്ങള് ട്രിപ്പ് പോയാരുന്നു മൂന്നാറിനായിരുന്നു അപ്പോള് നിങ്ങളുടെ ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മള് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഏജൻസീന്നൊള്ളൊരു ക്യാബ് വിളിച്ചിട്ടാണ് പോയത് അപ്പോള് നിങ്ങളുടെ ഒരു ഡ്രൈവർ എന്നു പറഞ്ഞാലും അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി ആണെങ്കിലും പക്കാ പെർഫെക്റ്റായിരുന്നു അപ്പോള് ഞങ്ങള്ക്ക് വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങളുടെയൊരു സേവനം ആവശ്യമുണ്ടായിരുന്നു നെക്സ്റ്റ് മന്ത് ഒരു നയൻ്റീന്തിനൊക്കെയായിരുന്നു ആവശ്യം ഞങ്ങള്ക്ക് കന്യാകുമാരിക്ക് പോകാനാണ് അപ്പോള് അന്ന് ഒരു ഡ്രൈവറുണ്ടായിരുന്നു ഷാനാസായിരുന്നു നല്ല ഫ്രണ്ട്ലി മൈന്ഡായിരുന്നു അതുപോലെതന്നെ വണ്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഫുൾ നീറ്റ് ആൻഡ് ക്ലീന് ആയിരുന്നു അദ്ദേഹം ഡ്രൈവറാണങ്കിലും നമ്മടടുത്തൊരു ബാഡ് കമന്റ്സോ അല്ലെങ്കില് ബാഡായിട്ട് സംസാരിക്കാനോ അല്ലെങ്കില് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് മോശമായിട്ട് സംസാരിക്കാനൊന്നും ഇന്നുവരെ നിന്നിട്ടില്ലായിരുന്നു നല്ല നമ്മളെ എങ്ങനെയാണോ ഇവിടുന്ന് കൊണ്ടു പോയത് അതുപോലെതന്നെ പെർഫെക്റ്റായിട്ടും അടിപൊളിയായിട്ടും നമ്മളെ ഇവിടെ കൊണ്ടുത്തന്നായിരുന്നു അതുപോലെ നമ്മള് പറയുന്നിടത്തൊക്കെ നമ്മളെ ഇറക്കി നമുക്ക് ഒത്തിരി കാഴ്ചയെല്ലാം കാണിച്ച് തന്നായിരുന്നു നല്ലൊരു ഇതാ പെർഫെക്റ്റായിട്ടുള്ള ഒരു മനുഷ്യനും അതുപോലെതന്നെ പെർഫെക്റ്റായിട്ടുള്ള ഒരു ഏജൻസി ആണെന്ന് തോന്നിയത് കൊണ്ടുതന്നെ അടുത്ത മാസം പത്തൊമ്പതാം തീയതി ഞങ്ങള്ക്ക് കന്യാകുമാരിക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അന്നേരം നിങ്ങളുടെ ഏജൻസിയായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് കോൺടാക്റ്റ് ചെയ്തത് അപ്പോള് ഈ ഷാനാസ് എന്നു പറഞ്ഞ ആ ഒരു അദ്ദേഹത്തെയും ഞങ്ങള്ക്ക് ഡ്രൈവറായിട്ടും അതുപോലെതന്നെ നിങ്ങളുടെ ഒരു കാര് നമുക്ക് ട്രിപ്പ് പോവാനായിട്ട് തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഓക്കെ താങ്ക് യു